ബാങ്കിങ്ങ് സേവനം എന്നു പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ തൊട്ടടുത്ത് വരെയുള്ള ഒരു ചെറിയ ബാങ്കിൽ ബാങ്കിന്റെ ശാഖയും അങ്ങനെയുള്ള കമ്പ്യൂട്ടർ വഴിയുള്ള എല്ലാ പ്രവർത്തനം കാരണം ബാങ്ക് സേവനം എളുപ്പമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് ആർക്കും വലിയ ബുട്ടിമുട്ടൊന്നുമില്ല അങ്ങനെ ഈ കമ്പ്യൂട്ടർ വഴിയുള്ള എല്ലാ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് നല്ല എളുപ്പത്തിലുള്ള അക്കൗണ്ടിന്റെ കാര്യത്തിലായാലും എന്തിനായാലും നല്ല ഉഷാറായിട്ട് നടക്കും എല്ലാം കമ്പ്യൂട്ടർ വഴി നടക്കുന്ന സംഭവമായതുണ്ട് പൈസയാണെങ്കിലും നമുക്ക് ഫോണിലൂടെയും എല്ലാതരത്തിലൂടെയും എടുക്കാവുന്നതാണ് ഫോൺപേയും അക്കൗണ്ടിൽ ഇനിയിപ്പം എ ടി എം കാർഡുണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും പൈസയെടുക്കാം പൈസയെടുക്കാനൊരു ബുട്ടിമുട്ടുമില്ല എളുപ്പവഴിയുള്ള സംഭവമാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറാണ് ഏറ്റവും മെയിനായിട്ടുള്ള എല്ലാ പ്രവർത്തനവും നടത്തുന്നതിന് കമ്പ്യൂട്ടറുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കാൻ എളുപ്പമായിട്ടുണ്ട്